ഹോട്ടലുകളിൽ കേറി വെച്ചാൽ രാവിലെ സമയമാണെങ്കിൽ റോസ്റ്റ്

റോസ്റ്റും ഉച്ചസമയത്ത് ആണെങ്കിൽ ബിരിയാണി ബിരിയാണി നെയ്ച്ചോറ് പിന്നെ രാത്രി ആണെങ്കിൽ പൊറോട്ട ബീഫ് കറി അങ്ങനെയൊക്കെയായിരിക്കും തട്ടുകടകളിൽ പൊതുവേ ചായ പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന എണ്ണ പല എണ്ണ പലഹാരങ്ങൾ കഴിക്കാറുണ്ട് ഹോട്ടലുകളിൽ കഴിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ അവിടുത്തെ എന്താണോ ഹൈ ലൈറ്റ് അതായിരിക്കും കൂടുതലായി കഴിക്കുന്നത് അതാണ് അതുകൊണ്ട് ഹോട്ടലിൽ അത് കഴിക്കും തട്ടുകടകളിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എണ്ണക്കടി എന്താണോ അവിടെയുള്ളത് അത് കഴിക്കും അല്ലാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല